ഞാന് പിന്നേ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി പിന്നേ മന്തി കുറച്ച് ചപ്പാത്തി പത്തിരി അതേപോലെത്തന്നേ ഒരു അമ്പത് പൊറോട്ട പക്ഷേ എനിക്ക് കുറച്ച് സാധനങ്ങള് കുറച്ച് കുറവ് വേണം പത്തിരി ഞാനൊരു നൂറു പത്തിരിയായിരുന്നു പറഞ്ഞത് എനിക്ക് നൂറു പത്തിരി വേണ്ട പകരം എനിക്കൊരു എഴുപത് പത്തിരി മതി ചപ്പാത്തി പിന്നേ അതും ചപ്പാത്തി എഴുപത് മതി പിന്നേ പൊറോട്ട അമ്പത് പൊറോട്ടയായിരുന്നു പറഞ്ഞത് അമ്പത് പൊറോട്ട വേണ്ട ഒരു മുപ്പതെണ്ണം മതിയായിരിക്കും അപ്പം അത് അത് പറയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് അത്രയും സംഭവങ്ങള് കുറച്ച് മതി കാരണം വരാന്ന് പറഞ്ഞ ആള്ക്കാര് കുറച്ച് പേര് വരില്ല അപ്പം ഭക്ഷണം എന്തിന് ഓവർ വേണ്ടല്ലോ അപ്പോൾ ഇത്രയും സാധനങ്ങള് വൈകുന്നേരം എത്തിച്ചാൽ മതിട്ടോ